അങ്ങനെ ഞങ്ങൾ അങ്ങനെയൊരു അസിസ്റ്റൻ്റിനെ ഉപയോഗിച്ചിട്ടൊന്നുമില്ല അസിസ്റ്റൻ്റ് എന്നു പറഞ്ഞാൽ കുറെ കണക്കിന് അസിസ്റ്റൻ്റുകളുണ്ട് ഓഫീസിലാണെങ്കിൽ ഓഫീസിലെ മാനേജർ ഇല്ലെങ്കിൽ ഓ സ്റ്റാഫിനെയൊക്കെ അസിസ്റ്റ് ചെയ്യാൻ ഒരാൾ നമ്മളെ നിയമിക്കാറുണ്ട് അവരെയാണ് നമ്മൾ അസിസ്റ്റൻ്റ് എന്നു പറയുന്നത് അങ്ങനെയുള്ളവർക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഉണ്ട് മാനേജറോ ഇല്ലെങ്കിൽ ഓഫീസിലെ ഏതെങ്കിലും ഒരാൾ ലീവ് ആണെങ്കിൽ ആ ഒരു കാര്യം ഫുൾ ചെയ്തു തീർക്കേണ്ടത് അവർ ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ചെയ്തില്ല എങ്കിൽ അത് നേരെ ചെയ്യേണ്ടത് അസിസ്റ്റൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് അത് അവർ ചെയ്യുക തന്നെ വേണം അതിനാണ് അവരെ നിയമിച്ചിട്ടുള്ളത് അസിസ്റ്റൻ്റ് എന്നു പറഞ്ഞാൽ എല്ലാ മേഖലയിലും ഇപ്പോൾ അസിസ്റ്റൻ്റ് ഉണ്ട് എല്ലാ തൊഴിലിലും ഏത് തൊഴിലില്ലാണെങ്കിലും അതിൽ അതിൽ അതിന് അസിസ്റ്റ് ചെയ്യാനാണ് ഈ അസിസ്റ്റൻ്റിനെ ഉപയോഗിക്കുന്നത് അങ്ങനെ എല്ലാ മേഖലയിലും അസിസ്റ്റൻ്റിനെ നിയമിക്കാറും ഉണ്ട്